ഗ്രാമീണ അധ്യാപന രീതിയും നഗര അധ്യാപന രീതിയും തമ്മില് വ്യത്യസമുള്ളതായിട്ട് തോന്നാറുണ്ട് അതായത് ഇപ്പം ഇപ്പം ഗ്രാമീണ അധ്യാപന രീതി എടുത്തുകഴിഞ്ഞാല് അതായത് ഗ്രാമത്തിലുള്ള സ്കൂള് അധ്യാപകര് കുട്ടികളെ പഠിപ്പിക്കുന്നതാണെങ്കിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവര് കൂടുതലും പുസ്തകത്തിലുള്ള കാര്യത്തിന് പുറമേ അതിന് പുറം ലോകായിട്ട് ബന്ധപ്പെടുത്തി അവര് അത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നാൽ നമ്മള് നഗരത്തില് അധ്യാപന രീതി എടുത്തുകഴിഞ്ഞാല് അവര് കൂടുതലും ബുക്ക് ഓറിയെന്റ്റ്ഡായിട്ടായിരിക്കും അതായത് പുസ്തകത്തില് എന്താണോ ഒള്ളത് അത് മാത്രാമാണ് അത് മാത്രം ആയിരിക്കും അവര് കൂടുതലായിട്ട് പഠിപ്പിക്കാറുള്ളത് അതായത് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു നെല് കൃഷിയെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് നെല് കൃഷി എങ്ങനെയാണ് എന്താ പ്രോസസ് എന്നൊക്കെ അറിയണമെന്നുണ്ട് അപ്പം നഗര ഗ്രാമീണ ഗ്രാമീണ അധ്യാപന രീതി എടുത്താല് അവര് ആ അധ്യാപകര് കുട്ടികളെ കൊണ്ട് നടക്കുന്ന നെല് വയലിലേക്ക് പോകുകയും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസിലാക്കി കൊടുക്കുകയും അത് നേരിട്ട് കുട്ടികളെ അത് കാണിച്ചു കൊടുക്കുക നമ്മളിപ്പം നഗര അധ്യാപന രീതി എടുത്താ അവര് കൂടുതലും എന്താ ചെയ്യുന്നത് എന്നാണോ പുസ്തകത്തി പറഞ്ഞത് അത് ചിലപ്പം വായിച്ചു കൊടുക്കുവായിരിക്കും ഇപ്പം അല്ലെങ്കില് ഇപ്പം ഇതേകണക്ക് വീഡിയോക്കെ സ്കൂളില് കാണിക്കാറുണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുവായിരിക്കും പക്ഷേ എന്നാല് പോലും നമ്മള് നേരിട്ട് കാണുന്ന ഒരു ഒരു അനുഭൂതി ഒരിക്കലും ഇതിലൂടെ കിട്ടാറില്ല അപ്പോൾ ഇത് തമ്മില് ഒത്തിരി വ്യത്യാസം നമ്മള് കാണാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതല് ഔട്ട് ഡോര് ആക്റ്റിവിറ്റിസ് ചെയ്യിപ്പിക്കുന്നത് ഗ്രാമീണ അധ്യാപന രീതിയിലായിരിക്കും ആ അവിടത്തെ അധ്യാപകര് കൂടുതലും കുട്ടികളെ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് ശ്രമിക്കും പുറം ലോകത്തെ അറിവുകളായിരിക്കും ബുക്കിനു പുറമേ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത് അങ്ങനെ കുറേ വ്യത്യാസം നമ്മള് കാണാനായിട്ട് പറ്റും നഗരം അധ്യാപന രീതി എടുത്ത് കഴിഞ്ഞാൽ മോശമെന്നല്ല എന്നാല് പോലും ഗ്രാമീണ സ്കുളിലെ അധ്യാപകര് കുട്ടികളെ കുറച്ച് കൂടി പുറം ലോകവുമായിട്ട് കണക്റ്റ് ചെയ്യാന് വേണ്ടി ശ്രമിക്കാറുണ്ട് പുറം പുറത്ത് നടക്കുന്നതും അതായത് ബുക്കിലെ കാര്യങ്ങള് മാത്രല്ല പുസ്തകത്തിലുള്ളത് മാത്രല്ല നമ്മള് പഠിക്കേണ്ടത് അതിന് അപ്പുറം കുറേ കാര്യങ്ങളൊക്കെ കാണുമല്ലൊ അപ്പോൾ അത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടെന്നു തോന്നാറുണ്ട്